അതെ പറയു ആരാ ആ ആ ഓക്കെ ഓക്കെ പറയു അതെ ആ പറഞ്ഞത് ശരിയാണ് കാണം ദിവ്യാ കൺസ്രക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോളാണ് മാനേജർ ആയത് അപ്പോൾ അതിന് മുമ്പ് വേറെ ഒരാളാണ് നടത്തിക്കൊണ്ടിരിന്നത് അപ്പോൾ പുള്ളികാരൻ്റെ കയ്യിൽ നിന്നും കുറേ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്കും കേൾക്കാൻ അറിഞ്ഞിട്ടുള്ളത് ആ പക്ഷേ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഒരു ഏഴ് പണിക്കാർ നമ്മൾ ഇവിടെ എമ്പതോളം പ്ലാറ്റ്ഫോമുകളുണ്ട് അപ്പോൾ അവിടെ ഒര് പ്ലാറ്റഫോമിൽത്തന്നെ ഏഴ് പണിക്കാരും ഒരു സൂപ്പർവൈസറും ഒരു ഫയർ ആൻഡ് സേഫ്റ്റിയും ഉണ്ട് അപ്പം ഫയർ ആൻഡ് സേഫ്റ്റി ഈ ഏഴ് പണിക്കാർക്കും ഒരു ആയിട്ട് ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ഉണ്ട് അപ്പോൾ ഈ ഫയർ ആൻഡ് സേഫ്റ്റി എന്ത് അപകടം വന്നാലും നോക്കിക്കോളും ഈ ഇടക്ക് വളരെ മൈനൂട്ട് ആയിട്ടാണ് ഈ ഇടയ്ക്ക് ഒരു തീ പിടിച്ചായിരുന്നു അപ്പോൾ ഒരാളുടെ ദേഹത്ത് ചെറുതായിട്ട് ഒരു പൊള്ളൽ ഏറ്റു അത് ഫയർ ആൻഡ് സേഫ്റ്റി ആണ് പെട്ടെന്ന് അവർ അത്രയ്ക്ക് എക്സ്പെർട്ട് ആയിട്ടുളള ആൾക്കാരെ നമ്മൾ വയ്ക്കുന്നുള്ളൂ അപ്പോൾ അവർ അപ്പോൾത്തന്നെ ഇടപെട്ട് ആ അത് ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ ചെറിയൊരു പൊള്ളല് വന്നു അത് പുള്ളിക്കാരൻ ദേഹം മുഴുവനും കത്തി പോവാനുള്ളത് ആയിരുന്നു അത് പുള്ളിക്കാരൻ്റെ കയ്യിലുള്ള മിസ്റ്റേക്ക് ആണ് കണക്ഷനെങ്ങാണ്ട് എന്തോ മാറ്റി കൊടുത്തു ഇപ്പോൾ ഒരു ഇലക്ട്രീഷൻ വർക്ക് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലായിരുന്നു അപ്പോൾ ആ ഇങ്ങനെ നമ്മുടെ ഇവിടെ ഫയർ ആൻഡ് സേഫ്റ്റി ഉണ്ട് അപ്പൊ നിങ്ങൾടെ സുരക്ഷിതം സുരക്ഷിതത്വം നോക്കും നമ്മൾ പുതിയതായിട്ട് വരുന്ന കസ്റ്റമർക്കും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു ജോബും കൊടുക്കാറില്ല അതിനനുസരിച്ചുള്ള സാലറിയും കൊടുക്കാറുണ്ട് അതെ അതെ ഞാൻ ഇപ്പോൾ മാനേജ ർ ആയതിന് ശേഷം ബിഗിനേഴ്സിന് എല്ലാം ട്രെയിനിങ് ചെയ്യാൻ വരുന്ന പുള്ളേർക്ക് വരെ ഇവിടെ അപ്പോയിമെൻറ്റ് നൽകാറുണ്ട് ഇവിടെയാണെ ഇപ്പോൾ കുറേ കുട്ടികൾ കോളേജ് ഈ കോഴ്സ് പഠിച്ച് കഴിഞ്ഞ് ട്രെയ്നിങ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ മാക്സിമം അല്ല മിക്കയുള്ള കുട്ടികളും ഇവിടെ ഇവിടോട്ടാണ് വരാൻ ശ്രമിക്കുന്നത് അപ്പോൾ അവരുടെയും സുരക്ഷിതത്വം നമ്മൾ നോക്കേണ്ടതല്ലേ അല്ലാ ആ ബിഗിനേഴ്സിന് ആയിട്ട് വേറെ കാറ്റഗറിയാണ് അവരുടെ ഇടയിൽത്തന്നെ ഫയറ് വരുന്ന രീതിയിൽ ഒരു സംഭവമില്ല കാരണം അവിടെ വോൾടേജും കറണ്ടും എല്ലാം ലോ ആയിട്ടാണ് കൊടുക്കുന്നത് അവർക്ക് മാത്രമായിട്ട് പ്രത്യേകമൊരു പ്ലാറ്റ്ഫോമുണ്ട് അവിടെത്തന്നെ മൂന്ന് ഫയർ ആൻഡ് സേഫ്റ്റിക്കാരുണ്ട് ആ അതുപോലെത്തന്നെ അവർക്ക് കറക്റ്റിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തരായാലും നമ്മൾ വർക്കേഴ്സിനെക്കാളും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ട്രൈനേഴ്സിനെയാണ് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അതെ അതെ അതെ ആ ഓക്കെ ഓക്കെ കുഴപ്പമില്ല ഇവിടെ അപ്പോയിമെൻറ്റ് കിട്ടിയില്ലായിരുന്നോ ജോലിക്ക് കയറി ഇല്ലായിരുന്നോ ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഓ ശരി എന്നാൽ